സോൾജ്യല്ലെ അ ഞങ്ങള്ക്കേ ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടായിരുന്നു മൂന്നാര് വരെ മൂന്നാര് വരെ അപ്പോള് അ നാളെയോ നാളെ കഴിഞ്ഞോ സൗകര്യം പോലെ ഒരു ദിവസം പറഞ്ഞാല് മതി നാളെ ഈയാഴ്ചതന്നെ വേണം നാളെ നാളെ കഴിഞ്ഞോ അപ്പോള് മൂന്നാര് ടൌൺ വരെ ഞങ്ങള്ക്ക് ടൗണിലൊന്നു പോകേണ്ടൊരു ആവശ്യമുണ്ട് അപ്പോള് അവിടെ ഒരാളെ കാണാനുണ്ട് അപ്പോള് ഒന്ന്ു വെറുതെ അപ്പോള് പോകുമ്പോള് ഒന്നു ചുറ്റിക്കറങ്ങിയിങ്ങു പോരാമെന്നു വിചാരിച്ചിട്ടാണ് അപ്പോള് അതിനു ഞാൻ ഞാനിവിടെ പാറത്തോട്ടുനിന്നാണു കയറുന്നത് എൻ്റെ കൂടെയുള്ളയാള് കല്ലാര്കുട്ടിയില്നിന്നു കയറും അപ്പോള് നമുക്ക് അപ്പോള് ഞങ്ങള് ഷെയറിട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോള് എത്ര രൂപയാവും ഓട്ടോ കൂലി നമ്മളെങ്ങനെയാണു ഫുഡ് കഴിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കൊയൊന്ന് അറിയണമായിരുന്നു ഒന്ന് പറയാവോ അതേ മ് അ അതെ അ അങ്ങനെയാണെന്നുണ്ടെങ്കില് ഞാന് കൂട്ടുകാരിയെ വിളിച്ച് അറേഞ്ചെയ്തോട്ടെ നമ്മള്ക്ക് അങ്ങോട്ട്ു പോവാനുള്ള സംവിധാനമുണ്ട് ആലോചിക്കാം അല്ലേ ഞങ്ങള് രണ്ടു പേരേ ഉള്ളൂ അപ്പോള് മ്

പാറത്തോട്ടില് വന്നാല് മതി പാറത്തോട്ടില് ഞാനുണ്ടാവും പാറത്തോട്ട് ബീന അറിയുമോ ബിൻ്റെ അടുത്താണ് ആ അപ്പോള് അവിടെ അടുത്താണെ ഞങ്ങളുടെ വീട് അപ്പോള് അവിടെനിന്നു കയറിക്കോളാം കൂട്ടുകാരിയെ കല്ലാർകുട്ടിയില്നിന്നു പിക്കിയേണം എന്നിട്ട് നമ്മള്ക്ക് അടിമാലി വഴിക്ക് അല്ലെങ്കില് ആനച്ചാല് വഴിക്ക് എങ്ങനേലും പോവാം മൂന്നാറിന് അതെ അ അതേ ആ വണ്ടി അ വണ്ടിക്കൂലി മാത്രമല്ല നമുക്ക് സേഫായിട്ട് യാത്രെയ്യണം അതാണ് പ്രധാനം അപ്പോള് നമുക്കു പരിചയമുള്ള ആളാവുമ്പോള് ധൈര്യമായിട്ട് നമുക്കു കയറാം കയറുകയും പോവുകയും വരെയും ചെയ്യാമല്ലോ അപ്പോള് ആ ആ അപ്പോള് ആ മതി മതി മതി നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോള് ഞാൻ കൂട്ടുകാരെയുംകൂടെ ഒന്ന് ആലോചിച്ചിട്ട് സമയമൊക്കെ കൃത്യമായിട്ട്ു പറയാം നാളെ ഞാൻ വിളിക്കാമേ പോരേ ആ ഉവ്വ് ഉവ്വ് ഉവ്വ് ഞാൻ വിളിച്ചേക്കാം മ് പിന്നെ അതില് അ അ ആയ്ക്കോട്ടെ ആയ്ക്കോട്ടെ വിളിച്ചോളാം ഓക്കെ എന്നാ വച്ചേക്കട്ടെ മ് ശരി